മലയാളത്തിൽ സംസാരിക്കുമ്പോളും എഴുതുമ്പോളൊക്കെ നല്ല ബുദ്ധിമുട്ടുതന്നെയാണ് ഉള്ളത് അങ്ങനെ ബുദ്ധിമുട്ടെന്നു പറഞ്ഞാൽ നമ്മളിപ്പം മലയാളം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടക്ക് കൂടി ഇംഗ്ലീഷും നമ്മൾ അറിയാതെ പറഞ്ഞു പോകും അത് പിന്നെ എത്ര മാറ്റാൻ ശ്രമിച്ചാലും അങ്ങനെത്തന്നെ വരികയുള്ളൂ നമ്മളിപ്പം ഇംഗ്ലീഷ് മീഡിയത്തിൽ ഇംഗ്ലീഷും നമ്മളിപ്പം സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ തന്നെ ഇംഗ്ലീഷും മലയാളം എല്ലാം കൂടിയിട്ടാണ് പഠിക്കുന്നത് അപ്പോൾ പിന്നെ നമുക്ക് ഷോർട്ടായിട്ട് നമ്മൾ എന്തെങ്കിലും വർത്തമാനമൊക്കെ പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ചെറുതായിട്ടൊക്കെ ഒര് ഇംഗ്ലീഷൊക്കെ വരാറുണ്ട് പിന്നെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വല്ലാണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെയെന്നു പറഞ്ഞാൽ മലയാളം പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഇടയിൽ നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ ഇംഗ്ലീഷിൻ്റെ എന്താ വേ നമ്മൾ പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ നമ്മൾ അറിയണം ഇല്ലെങ്കിൽ നമ്മളെന്തെങ്കിലുമൊക്കെ പൊട്ടത്തരമായിരിക്കുകയാ കും പറയുന്നത് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടുതന്നെയുള്ളൂ പിന്നെ എഴുതുമ്പോഴൊക്കെ ഒരു എഴുതുമ്പോൾ നല്ല നല്ല ബുദ്ധിമുട്ടാണ് മലയാളം തന്നെ ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ പഠി നമ്മൾ പഠിക്കുന്ന സമയത്താണേ നമുക്ക് നല്ലോണം എഴുതാനൊക്കെ അറിയാം ഇപ്പം കല്യാണം കഴിഞ്ഞതും നമ്മളിപ്പം എഴുതുന്ന ഇതിൽ നിന്ന് മാറി നമ്മളിപ്പം എഴുതാനെന്നൊന്നും നിൽക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എഴുതാനൊക്കെ മറന്നു പോയി മലയാളത്തിൽ പല അക്ഷരങ്ങളും ഒന്നും ഓർമ്മയൊന്നും ഇല്ല എല്ലാം മറന്നൊക്കെ പോയിട്ടുണ്ട് അതേപോലെത്തന്നെയാണ് എഴുതാനും പറയുമ്പം നമ്മളിങ്ങനെ നല്ല ഉഷാറിൽ മലയാളം പറയും പക്ഷേ എഴുതുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടും ഒന്നുമില്ല നമ്മൾ തെറ്റൊക്കെ ആയിരിക്കും എഴുതുന്നത് ഓരോ അക്ഷരങ്ങളും നമുക്ക് മാറി പോകാറൊക്കെ ഉണ്ട്